കളിക്ക് ഇടയിൽ ഇപ്പം പരിക്കേൽക്കുകയോ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം റീസൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരു ഫുഡ്ബോൾ ടൂർണമെൻ്റ് നടക്കുക ഉണ്ടായി അതിന് അത്യാവശ്യം പുറ ഒരുപാട് ടീമുകള് ഈ ജില്ല മൊത്തം അത്യാവശ്യം കൊറേ ടീമുകൾ വന്നു കളിച്ചു ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരുന്നു അതിൽ ഏകദേശം പ്രൈസ് ബോളും ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപയോളം ആയിരുന്നു അപ്പം അത്യാവശ്യം വലിയ രീതിയിൽ നടത്തിയ ടൂർണമെൻ്റ് ആയതുകൊണ്ട് പിന്ന വലിയ അത്യാവശ്യം നല്ല പ്ലെയേഴ്സും നല്ല യെങ്ങായിട്ടുള്ള കുറേ പ്ലയേഴ്സും ഇന്ന് കളിക്കുന്ന ടൂർണമെൻ്റ് ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കെയർ ഒരു അ തൊട്ടപ്പുറത്തുള്ള ഒരു പാലിയേറ്റീവ് കെയറിൽ നിന്നു ഒരു സിസ്റ്ററും ആ ഒരു സിസ്റ്ററും അതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറും പിന്നെ അവരുടെ കുറച്ചു മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റും ആയിട്ടാണ് അവർ വന്നു അന്ന് ആ ടൂർണമെൻ്റ് നട അതായത് ഓൾ കളിയുടെ ഉട ഉടനീളം അവർ ഉണ്ടായിരുന്നു ആ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അവരുടെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല കാരണം ചാൻസ് എഎന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നു പറയുന്നത് ഇപ്പം എന്ത് ഇഞ്ചുറി ആണെങ്കിലും ഫസ്റ്റ് ഒരു ഫസ്റ്റ് എയിഡ് കൊടുക്കാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റയോട് മുൻ ഇതോടെ ആയിട്ട് നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടത് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതൊരു ഭയങ്കര ഒരു ആവിശ്യകരമായ ഒരു കാര്യമാണ് അത് പഞ്ചായത്താണ് നമുക്ക് അങ്ങനെ ഒരു എം കോം പാലിറ്റിവ് കെയർ ആയിട്ട് ഒരു പാലിയേറ്റിവ് കെയറിനെ വിളിച്ചു ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു പാലിയേറ്റിവ് കെയർ എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് പല ആൾ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒരു ഇതാണല്ലോ ഒരു സൊസൈറ്റി ആണല്ലോ കമ്മ്യൂണിറ്റി ആണല്ലോ അപ്പം പാലിയേറ്റിവ് കെയറിനെ അപ്പം തന്നെ വിളിച്ചു പഞ്ചായത്ത് ആണ് പഞ്ചായത്ത് ആണ് അപ്പം തന്നെ വിളിച്ചിട്ട് ഇത് ഹെൽപ് ചോദിച്ചതാണ് അപ്പോഴത്തേക്ക് അപ്പം തന്നെ അവർ ഓടി വരികയും ചെയ്തു ഒരു മടിയും ഇല്ലാതെ അപ്പം അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ആ പഞ്ചായത്തിൻ്റെ വലിയ ഒരു കാര്യമാണ് കാരണം പഞ്ചായത്ത് ഒരുപാട് എൻ്റെ എൻ്റെ പഞ്ചായത്ത് ഒരുപാട്

ഒരുപാട് ക്രിക്കറ്റ് ഫുട്ബോള് അപ്പം ഈ കഴിഞ്ഞ കഴിഞ്ഞ റീസൻ്റ് ആയിട്ട് നടന്ന ഫുട്ബോൾ ടൂർണമെൻ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതുപോരെ എന്നേയും ഒരുപാട് പഞ്ചായത്ത് മേളകളിൽ ഒരുപാട് സ്പോർട്സ് ഓട്ടം ചാട്ടം പിന്നെ പല്ലാട്ടുള്ള സ്പോർട്സ് ഐറ്റംസ് ഇവൻസ് പിന്നെ ക്രിക്കറ്റ് ടൂർണമൻറ് വോളിബോൾ ടൂർണ്ണമെൻ്റ് ഇപ്പം വോളിബോൾ ടൂണമെൻ്റൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഇഞ്ചുള്ളവർ ക്രിക്കറ്റിന് വോളിബോളും ഇപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ ഫുട്ബോളിനാണ് ഒരുപാട് ഇഞ്ചുറി വരുന്നത് ബാക്കി എല്ലാം ഇതിനും ഇഞ്ചുറി വരും ഫുട്ബോളിനാണ് ഒരുപാട് വരുന്നൂത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഞ്ചുറി വരുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് ടീമ് ഒരു പാലിയേറ്റിവ് കെയറ് ഉള്ളത്ത് വലിയ രു കാര്യം തന്നെയാണ് അപ്പം അപ്പ ഇങ്ങനെ ഒരു പുനരധിവാസം സൗകര്യങ്ങൾ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഉണ്ടെന്ന് അറിഞ്ഞു അല്ല ഉണ്ടെന്ന് ലഭിച്ചു ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ട്